മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ള വാക്കുകൾ എന്ന് എന്താന്ന് വെച്ചാൽ സന്തോഷവും സങ്കടവുമാണ് ഒരു മനുഷ്യൻ സന്തോഷം തേടി പോകുന്നു ഒരു മനുഷ്യ ജീവിതത്തിൽ സങ്കടകരമായ ഘട്ടങ്ങളും വരും സന്തോഷമായ ഘട്ടങ്ങളും വരും ഇതും രണ്ടും കൂടി ചേർന്നാണൊരു മനുഷ്യൻ്റെ ജീവിതം ഉണ്ടാകുന്നത് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെന്ന് വച്ചാൽ ഇതിന് രണ്ടിനും ഇടയിലാണ് ഒരു മലയാളി എന്ന നിനക്കില് നിലയിൽ എൻ്റെ ഭാഷയോട് എനിക്ക് ഭയങ്കര ഇഷ്ട്ടമുണ്ട് എനിക്കതിൽ അഭിമാനമുണ്ട് ഒ ഒരു മലയാളി എന്ന നിലയ്ക്ക് എൻ്റെ നാടിനെ പറ്റിയും കലകളെ പറ്റിയും അമ്പലങ്ങളെ പറ്റിയും അത് എല്ലാ സംഭവങ്ങളെ പറ്റിയും അതുന്നയിക്കുന്നു ഇതിനാൽ മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് എന്ന എന്നോട് തന്നെ ഭയ ഭ ഭയങ്കര അഭിമാനം തോന്നുന്നു